സ്നേഹിതാ എനിക്കൊരു സഹായം ചെയ്യണം അതായത് എനിക്കൊരു സ്കോളർഷിപ്പിന് കിട്ടുന്നതിനു വേണ്ടിയിട്ട് എൻ്റെ സർട്ടിഫിക്കറ്റുകള് എനിക്ക് സബ്മിറ്റെയ്യണ്ടതായിട്ടുണ്ട് ഞാന് വളരെ ദൂരെ എറണാകുളത്തിനപ്പുറത്തൊരു സ്ഥലത്താണിപ്പോള് നിൽക്കുന്നത് ഇന്ന് തന്നെയെനിക്ക് സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യേണ്ടതുള്ളതിനാല് ഡിജി ലോക്കറിലിരിക്കുന്ന എൻ്റെ സർട്ടിഫിക്കറ്റുകള് എടുത്ത് ഒന്ന് ഇന്നു ഞാന് പറയുന്ന ഓഫീസിലൊന്നു കൊടുക്കാനായിട്ട് ശ്രമിക്കണം ഒരു വലിയ സഹായമായിരിക്കും നന്ദി